ഗാന്ധിജിയുടെ ഒരു ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമൊക്കെ എനിക്ക് എല്ലാവരുമിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ആ ഗാന്ധിജിയുടെ ആത്മകഥ അപ്പം ഞാനിങ്ങനെ വായിക്കണമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു പ്രാവശ്യം ലൈബ്രറിയിൽ നിന്ന് ബുക്കെടുത്തിട്ട് വായിച്ചപ്പോൾ എനിക്ക് ആദ്യമൊന്നും പിന്നെ വലിയ ഒരു താത്പര്യം തോന്നിയില്ല പിന്നെ പിന്നെ വായിച്ച് വായിച്ച് ഗാന്ധിജി പോയ കഥകളും അവരുടെ ജീവിത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും അവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതും പിന്നെ നമ്മുടെ ഇന്ത്യയെ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നമുക്ക് വാങ്ങി തന്നതും അതൊക്കെ ഓരോ സാ ഉപ്പ് സത്യാഗ്രഹങ്ങളും അതൊക്കെ ഇപ്പം നമ്മളോരോ ഇപ്പം ഓരോരോ കാര്യങ്ങളും നമുക്കറിയില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വായിച്ച് വായിച്ച് പിന്നീട് എനിക്കത് താത്പര്യമായി അപ്പം ഞാൻ ഫുള്ളായി ഇരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മനസ്സ് മാറാൻ കാരണമെന്ന് എന്നതു കൊണ്ട് തന്നെ ഗാന്ധിജി ഗാന്ധിജിയുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നല്കിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യയെ തിരിച്ച് പിടിക്കാനും അതുപോലെ മലബാർ നമ്മുടെ കയ്യിലാകാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗാന്ധിജി ചെയ്തിട്ടുണ്ട് അതിന് സത്യാഗ്രഹങ്ങൾ അതുപോലെ പിന്നെ ജയിലിൽ കിടന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇത് ഇതൊക്കെ കൊണ്ട് തന്നെ ആ പുസ്തകം ഞാൻ വായിച്ച് തീർത്തു